ഹലോ

ദന്താശുപത്രിയാണോ ഡോക്ടറെ ഒരാഴ്ചയായിട്ട് പല്ലിനു വല്ലാത്തൊരു വേദന ഇതാദ്യമായിട്ടാണ് ഒരാഴ്ചയായി ഇപ്പോള് ചെറിയൊരു വേദനയൊക്കെ ചൂടുള്ളതും ആഹാരം കഴിക്കുമ്പോഴുണ്ട് അല്ലാതെയും സംസാരിക്കുമ്പോഴൊക്കെ ചെറുങ്ങനെ വേദന വരുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അണപ്പല്ലിന്റെ അവിടെ ചെറിയൊരു കറുത്ത ഇതുണ്ട് പൊട്ടുപോലെയുണ്ട് ഇതിനുമുന്നേ ഒരുപ്രാവശ്യം ക്ലിനിക്കില് വന്നായിരുന്നു അപ്പോഴവര് ജസ്റ്റൊരോയിന്മെൻറ്റ് വച്ചിട്ട് പറഞ്ഞുവിടുകയാണു ചെയ്തത് ഓക്കെ

ഓക്കെ അവടെ സർജറിയുടെ ഫെസിലിറ്റീസൊക്കെയുണ്ടോ ഹോസ്പിറ്റലില് ഓക്കെ ഏത് ഡോക്ടറായിരിക്കും ഉണ്ടാവുക അവിടെ കാണിക്കാന് ഓക്കെ ഓക്കെ ഇപ്പോള് തൽക്കാലം കുടിക്കാൻ പെയിൻകില്ലേഴ്സെന്തെങ്കിലും എഴുതിത്തരാന് പറ്റുമോ നാളെ വന്നാല് ആ ഓക്കെ ഡോക്ടർ എവിടെയായിട്ടാണ് ഓക്കെ ഡോക്ടർ ഓ ശരി താങ്ക്യൂ